അതു തീർച്ചയായും അമിത ഇന്ധനം പരിസ്ഥിതിക്ക് ബാധിക്കുന്നതു കൊണ്ട് മാത്രമല്ല ഈയൊരു ഇന്ധന വർദ്ധനവെന്നു പറയുമ്പം ഇന്ധന വില വർദ്ധനവെന്നു പറയുമ്പം ഒരു സാധാരാണ മനുഷ്യനെകൊണ്ട് സാ നോക്കിയാൽ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇന്ധന വർദ്ധനവ് കാരണം ഒരാൾ കഷ്ടപ്പെട്ട് അയാളൊരു ബൈക്കിലായിരിക്കും ചിലപ്പം അയാൾക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടത് അപ്പോൾ അയാളുടേ കയ്യിൽ വലിയ വണ്ടിയൊ കാറുകളോ ഒന്നും കാണുന്നതല്ല അപ്പം അയാളാ ബൈക്കിൽ പോകുമ്പോഴത്തേക്കും ഇന്ധനം വർദ്ധനവ് ഉണ്ടാകുമ്പോൾ അയാൾക്കത് വലുതായിട്ട് ബാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ വണ്ടി ബൈക്ക് എൻ നമുക്കത് അങ്ങനെ ഇന്ധന വരവു നന്നായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടു തന്നെ നമുക്കത് പ്രത്യേകിച്ച് കേ എയ്റ്റ് മാർച്ച് അങ്ങനെ പുതിയ മോഡൽ ബൈക്കുകൾക്കെന്നു പറഞ്ഞാൽ അമിതമായി ഇന്ധനം വേണ്ട ഒരു ബൈക്കാണ് കാരണം കുറച്ചു ദൂരം പോകുമ്പം തന്നെ അതങ്ങ് അ ഇന്തനം തീരുകയാണ് അപ്പം അവർക്കൊക്കെന്നോവ് വെച്ചു നോക്കിയാൽ ഒരു ദിവസം ഇന്ധനം അടിക്കാൻ മാത്രമായിരിക്കും അവരുടെ കൈയ്യിൽ പൈസ കാണത്തുള്ളൂ അപ്പം ഇത് കാറിലൊക്കെയാണെങ്കിൽ പിന്നൊട്ടും പറയണ്ട ഇന്ധനം വളരെ വേയ്സ്റ്റാകും അപ്പം ഇന്ധന വർദ്ധനവ് വലിയൊരു ബാധിക്കുന്നൊരു പ്രശ്നം കൂടിയാണ് പരിസ്ഥിതിക്ക് അത് ഹാനീകരവുമാണ്